അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് ഒന്ന് രണ്ടായിരം രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ്